പതിനാറ് ആറ് രണ്ടായിരത്തി നാല് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി പത്ത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ച് മൂന്ന് രണ്ടായിരത്തി നാല് ആറ് ഏഴ് രണ്ടായിരത്തി പതിനെട്ട്